നമ്മുടെ മാനേജ്മെൻറ്റ് സ്കൂള്കൾള് സ്കൂൾ പ്രവേശ്ത്തിൻ്റെ ഫീസ് ഘടന തീർച്ഛയായ്ട്ടും കോഴ്സ് ഫീസ്സെന്നൊള്ള രീതീല് ഈടാക്കാറൊണ്ട് അതുപോലെ തന്നെ പീ റ്റി എ ഫണ്ട് ഈടാക്കാറൊണ്ട് മേയ്ൻറ്റെനൻസ് ഫീയായിട്ട് സാധാരണ രീതീല് ഫീസ്സ്കള് വാങ്ങിക്ക്ന്നൊണ്ട് അത്പോലെ തന്നെ ഒള്ളതത് പുസ്തകങ്ങള് വാങ്ങിക്കാൻ വേണ്ടീട്ട് അഡ്വാൻറ്റസ്ഡായിട്ട് പേ ചെയ്യാറൊണ്ട് ഇങ്ങനെയൊള്ള കാര്യങ്ങൾ ചെയ്യ്ന്ന അത് ആണ് ബേയ്സിക്കായിട്ട് സ്കൂൾ പ്രവേശന സമയത്ത് ഫീസ്സ്കള് വാങ്ങിക്കാറൊള്ളത് അതുപോലെ തന്നെ അണ്ണേയ്ഡഡ് സ്കൂള്കളാണെങ്കിൽ അദ്ധ്യാപകർക്ക് ശമ്പളം കൊട്ക്ക്ന്നത് ഈ കുട്ടികളിൽ നിന്ന് പിരിച്ചെട്ടാണ് അപ്പ കുട്ടികളിൽ നിന്ന് പിരിച്ചിട്ട് വര്മ്പോൾ സ്വാഭാവിപികമായിട്ടും മാസത്തിൽ ഒരു നിശ്ചിത എമൗണ്ട് നമ്മള് ഫീസായിട്ട് കൊട്ക്ക്ന്നൊണ്ട് അതുപോലന്നെ മറ്റ് പ്രോഗ്രാമുകൾ കൾച്ചറൽ ആക്റ്റിവിറ്റീസ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ സ്വാഭാവികമായിട്ടും ഫീസ്സ്കള് ഇടാക്കാറുണ്ട് ഇങ്ങനെയാണ് നമ്മുടെ സ്കൂൾ പ്രവേശ്നത്തിൻ്റെ ഫീസ് ഘടന